എൻ്റെ മാതൃഭാഷ എന്ന് വെച്ചാൽ മലയാളഭാഷ തന്നെയാണ് ആ മലയാള ത്തെ ഞാൻ എൻ്റെ മാതാവിനേപ്പോലെയാണ് കരുതുന്നത് മലയാളഭാഷ സംസാരിക്കുമ്പോഴുള്ള സുഖം വേറെ ഒരു ഭാഷകൾക്കും നമുക്ക് ലഭിക്കത്തില്ല മലയാളഭാഷയുടെ ഒരു ആ ആഡിത്യവും ഒരു സംസാര ശൈലിയും അതിനകത്ത് ആ സ്നേഹവും എല്ലാം തുളുമ്പി നിൽക്കുന്ന ഒരു ഭാഷയാണ് മലയാളഭാഷ അതേപോലെത്തന്നെ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ കേരളത്തോട് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ തമിഴ് നമുക്ക് നമുക്ക് ചിലർക്ക് ഒക്കെ ഒരുവിധം വേഗം മനസിലാക്കാൻ പറ്റും പക്ഷേ ഈ മലയാളത്തേപ്പോലെ ഒരു ഒരു ലാളിത്യമോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്നേഹം തോന്നുന്ന തരത്തിലോ ഒന്നും അല്ല ഈ തമിഴ് ഭാഷ എന്നുവെച്ചാൽ അത് എഴുതാൻ ഇത്തിരി എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് പഠിക്കുമ്പം ചിലപ്പം എളുപ്പം ആയിരിക്കും പക്ഷേ പറയാനും വേഗം മനസിലാവും കാരണം നമ്മൾ സിനിമേൽ ഒക്കെ കാണുമ്പം തമിഴ് സിനിമയും കാണുന്നവരാണ് നമ്മൾ മലയാളികൾ അന്നേരം നമുക്ക് ഈ തമിഴ് ഭാഷ ചിലപ്പം മനസിലാക്കാം പക്ഷേ നമ്മുടെ മലയാളത്തിൻ്റെ അത്രയും സ്നേഹമോ വാത്സല്യമോ ഒന്നും നമുക്ക് മറ്റ് ഭാഷകളോട് ഒരിക്കലും തോന്നത്തില്ല അതേപോലെത്തന്നെ ഹിന്ദി ഹിന്ദി പഠിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഹിന്ദിയുണ്ട് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു വിധത്തിൽ ഹിന്ദി അറിയാം പക്ഷേ ആരുംതന്നെ ഈ പ്ലസ് റ്റൂ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ ഒക്കെ ഹിന്ദി മേയ്ൻ ആയിട്ട് എടുത്താലും അവർ ഒരിക്കലും ഹിന്ദി സംസാരിച്ചുകൊണ്ട് നടക്കത്തില്ല അവർ പഠിക്കാൻവേണ്ടി മാത്രം ഉപയോഗിക്കത്തുള്ളൂ അത് കഴിഞ്ഞ്ഈ മലയാളത്തെ തന്നെയാണ് അവരെല്ലാവരും സ്നേഹിക്കുന്നത് അവരെല്ലാവരും ഉപയോഗിക്കുന്നത് മലയാളത്തെ തന്നെയാണ് ഏറ്റവും നമുക്ക് എവിടെച്ചെന്നാലും മലയാളം സംസാരിക്കാൻ ആയിരിക്കും ഏറ്റവും ഇഷ്ടം ഏത് സ്ഥലത്തായാലും ഒരു മലയാളികളെ കാണുമ്പോഴ് നമുക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും എന്തൊരു ആശ്വാസമായിരിക്കും മലയാളത്തിൽ സംസാരിക്കുമ്പം എത്ര ഇങ്ക്ളീഷ് അറിയാവുന്നവനായാലും ഏത് ലാങ്വേജ് അറിയാന്നവനായാലും മലയത്തിൽ സംസാരിക്കുമ്പം കിട്ടുന്ന ഒരു സുഖം വേറൊരു ലാങ്വേജിനും കാണത്തില്ല അതുപോലെത്തന്നെ ഇങ്ക്ളീഷ് ഈ ലോകത്ത് എവിടെപ്പോയാലും ഇങ്ക്ളീഷ് വേണം ഇങ്ക്ളീഷ് വേണം എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ഇങ്ക്ളീഷ് മീഡ്യത്തിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ മലയാളത്തിൽ മലയാളത്തിൽ അക്ഷരങ്ങൾ പഠിക്കാതെയും മലയാളത്തെ സ്നേഹിക്കാതെയും ഒരു കുട്ടികളെയും ഒരു മാതാപിതാക്കളും വളർത്തതില്ല സ്വന്തം മാതൃഭാഷ്യത്തെയും അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കാൻ എല്ലാ മാതാപിതാക്കളും കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് എല്ലാവരും അതേപോലെയാണ് ആ മലയാളഭാഷയെ സ്നേഹിക്കുന്നത് മലയാളത്തെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രയും നമുക്ക് ഇഷ്ടം കൂടത്തതേയുളളൂ മലയാളഭാഷയെപ്പോലെ വേറെ ഭാഷകളിലൊക്കെ എനിക്ക് തോന്നുന്നില്ല കവിത ആയാലും കഥകളായാലും കുട്ടികൾക്കായാലും ആ കവിതയും കഥയും കവിത എല്ലാംകൂടെ ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അങ്ങ് നിറയത്തതേ ഉള്ളൂ അത് വേറെ ഒരു ലാങ്വേജിലും നമുക്ക് കിട്ടത്തില്ല മലയാളഭാഷയെ നെഞ്ചിലേറ്റാത്ത ഒരു മലയാളികൾ ഈ ലോകത്ത് കാണത്തില്ല ഏത് രോ ഏത് രാജ്യത്ത് ചെന്നാലും ഒരു മലയാളി എങ്കിലും കാണും ആ കൂട്ടത്തിലും മലയാളത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നവർ ആയിരിക്കും നമ്മൾ എല്ലാവരും തന്നെ മലയാളഭാഷയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും